നമ്മുടെ കേരളത്തിലെ റോഡുകളെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻറെ അവസ്ഥ വരെ ശോചനീയമാണ് കാരണം കുണ്ടും കുഴികളൊക്ക ഉള്ള റോഡുകളാണ് ഏത് വാഹനത്തിൽ കയറിപ്പോവുകയാണെങ്കിലും കുഴിയിൽ ചാടിയും കയറിയും ഹമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് പോകുന്നത് ഒരു മഴ പെയ്തുകഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട വെള്ളങ്ങൊ വെള്ളക്കെട്ടുകളും വെള്ളച്ചാലുകളും കൊണ്ട് റോഡിന്റെ കുണ്ടും കുഴികളൊന്നും കാണാൻ പറ്റില്ല ഒരു ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ സ്കൂട്ടി ആണെങ്കിൽ പിന്നെ അന്നതിന്റെ കഥ കഴിഞ്ഞു അത് അവിടെ നിർത്തി ഇടേണ്ടി വരും അത് പഞ്ചർ ആവും കുണ്ടിൽ ചാടുകയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവുകയാണെങ്കിൽ പിന്നെ തോളെല്ലും കാലെല്ലൊക്കെ പൊട്ടുന്ന ഇടത്തൊക്കെയാണ് കാരണം ഈ ഓട്ടൊറിക്ഷ കുണ്ടിൽ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ശരീരം കുത്തിയാണ് കമ്പീമ്മെക്ക് ശരീരം കുത്തിക്കൊണ്ടിരിക്ക് കുത്തുന്ന ഒരു അവസ്ഥ വരുവാണ് അത്രയ്ക്കും വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇനി പഞ്ചായത്തിലത്തെ റോഡിൽക്കൂടെ പോവുവാണെങ്കിൽ ഹൈവേ പെരുന്തൽമണ്ണ വഴി ആ റോഡ് ബസ്സിൽ പോവുകയാണെങ്കിൽ കാറിൽ പോവുവാണെങ്കിലൊക്കെ കാർ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു വാഹനമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പക്ഷേ ആ റോഡ് ഹൈവെ വലിയ ഹൈവെ റോഡ് ആണ് ആ റോഡിലെ എത് റോഡിൽക്കൂടെ പോവുകയാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ പിന്നെ അതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചില ഭാഗങ്ങൾ നന്നായി വരുമ്പം ചില ഭാഗങ്ങൾ പിന്നെയും കുഴിയായി മാറുകയാണ് അപ്പം ഗ ഗതാഗതത്തിന്റെ ഗുണനിലവാരം വളരെ മോശമാണ് കേരളത്തിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പ്രായം കൂടിയ ആളുകളെക്കൊണ്ട് നമ്മൾ സുഖമില്ലാതെ പോവുകയാണെങ്കിൽ പറയുകയും വേണ്ട അവർ അവിടെ എത്തുമ്പം അവരെ എത്തിക്കേണ്ട ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പോഴേക്കും അവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാകും പോയതിനേക്കാൾ അവരെ ബുദ്ധിമുട്ടിലാകുവാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ് പിന്നെ നമ്മൾ എവിടെക്ക് യാത്ര ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുകയാണ് ബസ്സിലാണ് അധികം കയറാറുള്ളത് ബസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബസ് ചാർജ് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ബസ് ചാർജ് നമുക്ക് ആവുകയുളളൂ ഏകദേശം പതിനഞ്ച് പന്ത്രണ്ട് രൂപ ഒക്കെയാണ് മിനിമം ചാർജ് ആയി വരുന്നത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു വാഹനമാണ് ബസ് അങ്ങനെ അത്യാവശ്യം കുറച്ച് ആളുകൾക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു ദൂ വണ്ടി ഒരു വാഹനമാണ് ബസ് പിന്നെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ റോഡിന്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ബസ്സിൽ പോകുന്നതിൻറെ ഒരു സുഖം യാത്ര ചെയ്യുന്ന സുഖം നല്ല റോഡ് ചില ഭാഗം ഒക്കെ നല്ലതാണെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിയും പോകാം കുണ്ടും കുഴിയുള്ള ഭാഗമാണെങ്കിൽ ഇതേമാതിരി ചാടിയും അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് വീണും കമ്പിമ്മെ കുത്തി ഒക്കെ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയാണ് ബസ്സിൽ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് യാത്രയ്ക്ക് വളരെ സുഖമുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ നമ്മളെ റെയിൽവേയിലോടുന്ന ട്രെയിൻ ആണ് യാത്ര ചെയ്യാൻ പിന്നെ ഒറു നമുക്ക് ഫാമിലി ആയിട്ട് പോവണമെങ്കിലും കുട്ടികൾക്ക് കിടക്കാനും ഇപ്പോൾ ഒരു ബാത്രൂം ഒക്കെ യൂസ് ചെയ്തങ്ങാണ്ട് ഇപ്പം ബസ്സിൽ പോകുവാണെങ്കിൽ അത് കഴിയില്ലല്ലോ അപ്പം ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബാത്രൂം സൗകര്യം ഉണ്ട് അതേമാതിരി ഫാമിലി ആയിട്ട് പോകാം കുട്ടികളൊക്കെ കിടത്തി ഉറക്കി അങ്ങനെ പോകാം ലഗേജുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ നല്ല സുഖകരമായി പോകാൻ പറ്റിയൊരു വാഹനമാണ് ട്രെയിൻ എന്ന യാത് പിന്നെ വലിയ ചിലവുമില്ല പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെറിയൊരു സ് സ് പിന്നെ ഇതിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വലിയൊരു യ പിന്നെ പൈസ ഒന്നും ആവില്ല നമുക്ക് പോവുകയാണെങ്കിൽ പിന്നെ പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെയാണ് ട്രെയിൻ യാത്ര ഉണ്ടെങ്കിൽ പിടിച്ചുപറിക്കാരും കള്ളൻമാരും അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകൾ അതായത് ഈ കഞ്ചാവ് സ്പിരിറ്റ് മദ്ദ്യത്തിനടിമയായി വരുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവുക അപ്പം അവർക്ക് ബോധം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ആളുകളുള്ള അങ്ങനെയുള്ള സ്ഥങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതും ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല സുഖകരമായ വേറൊരു വാഹനമെന്ന് പറയുകയാണെങ്കിൽ ജലഗതാഗതമാണ് വളരെ കുറഞ്ഞ ചിലവിലുള്ളതാണ് ബോട്ട് ജങ്കാർ അങ്ങനത്തെ ഒക്കെ വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ പിന്നെ ഫാമിലി ആയൊക്കെ പോകാം നല്ല കാലാവസ്ഥ ആയിരിക്കും ജല ഗതാഗതത്തിൽക്കൂടി പോകുമ്പൊൾ നമുക്ക് ആസ്വദിച്ച് പോവുകയും ചെയ്യാം മനസ്സിന് കുളിർമ്മയുണ്ടാകും ജലത്തിൽക്കൂടിയാകുമ്പോൾ ആസ്വദിച്ച് നമുക്കങ്ങനെ ഒരു നല്ല സന്തോഷത്തോടുകൂടി യാത്രയും കിട്ടും ഇങ്ങനെ എല്ലാം നോക്കി വെ വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റിയത് ജലഗതാഗതമാണ് അതുപോലെ തന്നെ വിമാനം പിന്നെ നല്ല ച നല്ല ചാർജ് വരുന്നൊരു ഇതാണ് വിമാനം അത് നമ്മളെ പോലെ സാധാരണ ആളുകൾക്കൊന്നും പോകാനായി കഴിയുകയില്ല പിന്നെ ജോലി സംബന്ധമായി ഒക്കെ പോകുന്നവർക്ക് അതായത് ഇപ്പം നമ്മൾ ജോലി ആസ്വദിച്ചല്ലേ പോകൂ വിദേശത്തേക്ക് നമ്മളെ വീട് അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുമല്ലോ എത്ര കാശായാലും കൊടുത്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രം ഇപ്പം നമ്മൾ വിമാനത്തിൽ കയറുകയുള്ളൂ അല്ലാതെ നമ്മൾ പോകില്ല കാരണം അത് ചിലവ് വളരെ കൂടിയ ചിലവുള്ളൊരു വാഹനമാണ് വിമാനം